പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ആറ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഒൻപത് മൂന്ന് നാല് രണ്ടായിരത്തി ഏഴ് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട്